എനിക്കുണ്ടായ ഏറ്റവും നല്ലൊരു അനുഭവം കളിക്ക് സ്പോർട്സ് കളിക്കുന്നതിനിടെ ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ എൻ്റെ കൂട്ടുകാർ കുറേ പേർ ഉണ്ടായിരുന്നു അവർ എല്ലാവരും കൂടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വീടിൻ്റെ തൊട്ട് അപ്പ് അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ക്രിക്കറ്റ് ഫുട്ട്ബോൾ എന്നിവ ഷട്ടിലൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ല ഒരു ഗ്രൗണ്ട് ആണ് എല്ലാവരും വന്ന് എല്ലാവരും ഒത്തുകൂടി കളിക്കുന്നൊരു ഗ്രൗണ്ട് ആണ് അങ്ങനെ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നതിൻറെ ഇടയിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്ട്സ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ് അതുകൊണ്ടുതന്നെ ഞാൻ ക്രിക്കറ്റ് കളിയിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് ബാക്കി ഫുട്ട്ബോളും ഷട്ടിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ക്രിക്കറ്റ് ആണെൻ്റെ ഇഷ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടുതന്നെ ക്രിക്കറ്റ് കളി ആണെന്ന് കൂട്ടുകാർ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പം രണ്ട് ടീം ആയിട്ട് തിരിച്ചു എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ ഞാൻ ആയിരുന്നു എതിർ ടീമിൻ ബാക്കി എല്ലാം എൻ്റെ കൂട്ടുകാർ തന്നെ ആയിരുന്നു അങ്ങനെ എല്ലാവരും കളിച്ചുതുടങ്ങി കളിച്ചുതുടങ്ങി ആദ്യത്തെ ബാറ്റിങ്ങ് കിട്ടിയത് എതിർ ടീമിനായിരുന്നു അവർ ഒരു നൂറ്റിനാൽപ്പത് റൺ എടുത്തു ഞങ്ങളുടെ ടീം വന്നപ്പോൾ അവസാനം ഒറ്റ ഓവർ മാത്രമായിരുന്നു ശേഷിച്ചത് നൂറ്റി മുപ്പത് റണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് റണ്ണും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ജയിക്കും എന്ന രീതിയിലായിരുന്നു സമ്മാനമായിട്ട് ഒരു ബാറ്റ് ആയിരുന്നു കൊടുക്കാനിരുന്നത് സ്പോൺസർ ചെയ്തിരുന്ന ആൾക്കാർ അത് ഞങ്ങളുടെ നാട്ടുകാർ തന്നെ സ്പോൺസർ ചെയ്തിരുന്നു അങ്ങനെ കളി തുടങ്ങി ലാസ്റ്റ് ഓവർ ആയി പത്ത് റണ്ണും കൂടെ വേണമെന്നുള്ള രീതിയിൽ എല്ലാവരും കളിച്ചു എല്ലാവരും ബാറ്റിങ്ങ് കഴിഞ്ഞ് അവസാനം ശേഷ് എ ഏറ്റവും അവസാനം ബാറ്റ് ചെയ്യണം എന്നും പ ചെയ്യാമെന്നും പറഞ്ഞ് നിന്നത് ഞാനായിരുന്നു അങ്ങനെ ലാസ്റ്റ് എൻ്റെ അവസരം വന്നു പത്ത് റൺ എങ്ങനെ എങ്കിലും മേടിച്ച് കളി ജയിച്ച് അഭിമാനത്തോടെ നിന്നാലേ പറ്റുള്ളൂ എന്നൊരു വാശിക്ക് കളി തുടങ്ങി ഇടയ്ക്കൊരു സിക്സ് അടിക്കാൻ പറ്റി പിന്നെ ലാസ്റ്റ് ശേഷിച്ചത് മൂന്ന് ബോൾ മാത്രമായിരുന്നു ആ അങ്ങനെ ഓടി മൂന്ന് ഇതിന് മൂന്ന് റൺ നേടി അങ്ങനെ അവസാനം ഒരു ബോളും ഒരു റണ്ണും വേണമെന്നുള്ള രീതിയിലായി ഒമ്പത് റണ്ണും കൂടെ എടുത്തിരുന്നു ഒരു റൺ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലായി അങ്ങനെ ഭാഗ്യവശാലെന്ന് പറയാം ആ എറിഞ്ഞത് മൂന്ന് അടുപ്പിച്ച് വൈഡ് ആയിരുന്നു അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഒരു റൺ കിട്ടി അത് കൂടാതെ വൈഡ് പിന്നെ എറിഞ്ഞ് അവസാനം വന്ന ബോളിൽ രണ്ടെണ്ണം ഓടാനും പറ്റി അങ്ങനെ പത്ത് വേണ്ടിടത്ത് പന്ത്രണ്ട് മേടിച്ച് ഞാൻ ഞങ്ങളുടെ ടീമിനെ വിജയിപ്പിച്ചു അങ്ങനെ അത്രയ്ക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് അത്രയ്ക്ക് അഭിമാനം തോന്നിയ ക കളിക്കുന്നതിനിടയിൽ തോന്നിയിട്ടുള്ള വേറെ നിമിഷമൊന്നുമില്ല എല്ലാവരും ഭയങ്കര ആഹ്ളാദത്തിലായിരുന്നു എന്നെയും പുകഴ്ത്തി പറഞ്ഞു എന്നെ ഭയങ്കര കാര്യമായിട്ടെടുത്തു ആ ബാറ്റ് സമ്മാനം കിട്ടിയത് എനിക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ ആണെങ്കിൽ എല്ലാവർക്കും കൂടെ ആർക്കെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് ടീമിന് വേണ്ടി സ്പോൺസറെ ടീമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്